ഹലോ ആ അതെ പറഞ്ഞോളൂ

എവിടെയെങ്കിലും കാണിച്ചിരുന്നോ ഇതിനുമുമ്പ്

മഴ എന്തെങ്കിലും നനഞ്ഞിരുന്നോ ആ മഴ നനഞ്ഞു അല്ലേ എന്തെങ്കിലും പുറത്തുനിന്ന് ഫുഡ് എന്തെങ്കിലും അങ്ങനെ കഴിച്ചിരുന്നോ എവിടെ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നാണോ കഴിക്കുന്നത് പുറത്ത് അതോ വീട്ടിൽ നിന്ന് എവിടുന്നെങ്കിലും ഉണ്ടാക്കിയതാണോ പുറത്തുനിന്നാണല്ലേ ആ ചിലപ്പോൾ ഫുഡ് പോയിസണിങ്ങിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാനാണ് ചാൻസ് ഗുളിക എന്തെങ്കിലും കഴിച്ചിരുന്നോ ഗുളികയൊന്നും കഴിച്ചില്ല അല്ലേ ഒരു പാരസെറ്റാമോൾ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കുറച്ച് ഒരു പാരസെറ്റാമോൾ ഒരു മൂന്ന് ഡോസ് വേണ്ടിവരും മൂന്ന് ഒന്ന് കഴിക്കുക എന്നിട്ട് കുറവുണ്ടോ എന്ന് നോക്കുക അതിപ്പോൾ നമുക്ക് ഈ പനിയൊക്കെ വന്നത് ചിലപ്പോൾ ഫുഡ് പൊയിസണിങ്ങിൻ്റെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ പാരസെറ്റമോൾ ഒന്ന് കഴിക്കുക അപ്പോൾ കഴിച്ചിട്ട് കുറയുമോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മളെ പിന്നെ ശരിക്ക് ജലദോഷം ഒക്കെ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ആവി പിടിക്കുക ഇത്രെയൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് നമ്മളോട് ഒന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് കുറയുന്നൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടിവരും ബ്ലഡും യൂറിനും ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഏ അപ്പോൾ അതുംകൂടെ നോക്കിയിട്ട് ആ നാളെ പറ്റുവെങ്കിൽ ആ നാളെ നോക്കൂ പറ്റുവോ എന്ന് നോക്കൂ നോക്കിയിട്ട് പറ്റുവെങ്കിൽ കുറയുന്നുണ്ടെങ്കിൽ നാളെ വരണം എന്നില്ല കുറവില്ലെങ്കിൽ വരേണ്ടിവരും നമുക്ക് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ടിവരും ആ നോക്കിയിട്ട് വിളിക്കാം കേട്ടോ ഓക്കെ വിളിക്കൂ മ്